ഇന്ന് സ്കൂളിൽ ഭാഷാ പഠനം സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലം പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്കൊരുപാട് നോളജ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നോളജ് ഉള്ളവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് എന്ന് പറയേണ്ടി വരും ഓൾമോസ്റ്റ് എല്ലാ അധ്യാപകരും അത്യാവശ്യം ഇതിനെ പറ്റിയുള്ള ഗ്രാഹ്യമുള്ളവർ തന്നെയായിരിക്കും അല്ലാത്തവരെ സ്കൂളിലൊരിക്കലും ഒരു ടീച്ചർ ആക്കിയിട്ട് ആരും നിയമിക്കില്ല അത്യാവശ്യം നല്ല നോളജുള്ള ആൾക്കാരെ മാത്രമേ ഇന്ന് ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണെങ്കിലും ഗവൺമെൻറ് ത്രൂ സെലെക്റ്റ് ചെയ്യുന്ന ഒരു ടീച്ചർ ജോബ് പോസ്റ്റിലേക്കുള്ളൊരു ടീച്ചർ ആണെങ്കിൽ ആൾടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് ഒരുപാട് ടെസ്റ്റ്കളിലൂടെ ഗവൺമെൻറ് ബോധിച്ച് ഗവൺമെൻറ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അല്ലെങ്കിൽ ബോധിച്ചതിന് ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യുകയുള്ളൂ സെലെക്റ്റ് ചെയ്ത് ഒരു സ്കൂളിലേക്ക് അധ്യാപകനായിട്ട് നിയമിക്കുകയുള്ളൂ പക്ഷെ പ്രൈമറി പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ പ്രൈമറി ഒക്കെയുള്ള സ്കൂളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് മാത്രം സെലെക്റ്റ് ചെയ്ത് അവരെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അയക്കുന്നൊരു സിസ്റ്റം ഉണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കണം എന്നോ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണമെന്നുള്ള ഒരു അറിവും കാര്യങ്ങളും ഇല്ലാതെ കയറി വരുന്ന സമയത്ത് അവർ പഠിപ്പിക്കുന്നത് പലതും അബദ്ധങ്ങളായി മാറാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് അവർ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകാതിരിക്കാൻ ഉള്ള ചാൻസുകൾ കൂടുതലാണ് ജസ്റ്റ് ഒരു ബുക്ക് കൊണ്ട് പോയി തുറന്ന് വെച്ച് അവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഒരദ്ധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികൾക്കുള്ള അറിവ് അതേപോലെ അവരുടെ ആ ഒരു സ്കിൽ എല്ലാം ഡെവലപ്പാകാനായിട്ട് ചാൻസ് കൂടും അതേ സമയം ഇതൊന്നും അറിയാത്ത ഒരു അദ്ധ്യാപകനാണെങ്കിൽ കുട്ടികൾക്ക് ആ അദ്ധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞ് പോകുകയും അതിലൂടെ അവരത് പഠിക്കാതാകുകയും പരീക്ഷകൾ വരുന്ന സമയത്ത് അവർക്കതിനെ ഫേസ് ചെയ്യാൻ പേടിയാവുകയും അതിലൂടെ അവർ തോറ്റ് പോകുകയൊക്കെ ചെയ്യും സൊ ഓരോ അദ്ധ്യാപകനും നല്ല അറിവുള്ള ആളാണെങ്കിൽ കുട്ടികളുടേയും അറിവ് കൂടും പഠിക്കാനുള്ള അവരുടെ ഇൻട്രസ്റ്റും കൂടും